ഞാനും ചെറുതായിട്ടൊക്കെ തയ്ക്കുന്ന ആളാണ് പിന്നെ ഞങ്ങളുടെ വീടിന്റെ അടുത്തു തന്നെ കൂടുതൽ ഒരു തയ്ക്കുന്ന ഫാക്ടറി തന്നെയുണ്ട് ഞാൻ തയ്ക്കുന്നത് ചുരിദാറുകൾ ബ്ലൗസുകൾ അങ്ങനത്തെ സാധനങ്ങൾ ഒക്കെയാണ് ഞാൻ ഞാൻ കുറെ ആൾക്കാർ കുറച്ച് ആൾക്കാരുടെ ഒക്കെ മേടിക്കും എന്നിട്ട് എൻ്റെ സമയം അനുസരിച്ചു തയ്ച്ചു കൊടുക്കും ചുരിദാറിന് ആണെങ്കിലും മുന്നൂറ്റി അൻപത് മുതൽ നാന്നൂറ് രൂപ വരെയാണ് ഈടാക്കുന്നത് അതുപോലെ തന്നെ സാരി ബ്ലൗസിന് ആണെങ്കിൽ ഇരുന്നൂറ് രൂപ ഇനി ഇപ്പം ലൈനിങ്ങോടു കൂടി അടിക്കുക ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയൊക്കെ ഞാൻ ഈടാക്കുന്നുണ്ട് പിന്നെ കൂടുതലായിട്ടും ചുരിദാറുകളും സാരി ബ്ലൗസുകളുമാണ് തയ്ക്കുന്നത് പിന്നെ പിള്ളേരുടെ കുട്ടി ഉടുപ്പുകൾ തയ്ക്കും പല തരത്തിലുള്ള മോഡലുകൾ ഞാൻ പല സ്ഥലങ്ങളിൽ നെറ്റുകളിൽ അങ്ങനെയെല്ലാം അന്വേഷിച്ചു കണ്ടുപിടിച്ചിട്ട് അതേ രീതിയ്ക്ക് തുണിയെടുത്ത് പിള്ളേർക്ക് തയ്യലുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഉടുപ്പുകൾ തയ്ച്ചു കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് പിന്നെ അതിന് ഒത്തിരി ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ്റി അൻപത് നാന്നൂറ് ഓരോ ഉടുപ്പിൻ്റെ രീതിയ്ക്ക് അനുസരിച്ചുള്ള പൈസകൾ മേടിക്കാറുണ്ട് പിന്നെ കൂടുതലായിട്ടുള്ള വലിയ വർക്കുകൾ ആണെങ്കിൽ ഞാൻ അടുത്തുള്ള സ്ഥലങ്ങളിൽ നന്നായിട്ട് തയ്ക്കുന്നവരുടെ അടുത്തു കൊടുക്കാറുണ്ട് പിന്നെ താ എടുത്തു കൊടുത്ത് ഞങ്ങളുടെ കൂടെയുള്ളവർക്കും മേടിച്ചു കൊടുക്കാറുണ്ട് പിന്നെ എനിക്ക് പരിചയക്കാരോട് ഒക്കെ ഇന്ന സ്ഥലത്തു തയ്യലുണ്ട് അതവർ തയ്ക്കാൻ തയ്ക്കുന്നതാണ് പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ തയ്ച്ചു തരാം ഒത്തിരി വലിയ വലിയ കാര്യങ്ങൾ ഒന്നും പറ്റത്തില്ല ചെറിയ ചെറിയ ഉടുപ്പുകളോ അങ്ങനെയൊക്കെ തയ്ച്ചു തരാമെന്നു പറഞ്ഞു ഞാൻ മേടിക്കാറുണ്ട് എൻ്റെ കൂട്ടൂകാരോട് ആണെങ്കിൽ ഞാൻ ഒത്തിരി പൈസ ഒന്നും ഈടാക്കാറില്ല ഓരോ രീതി വർക്കിന് അനുസരിച്ചുള്ള അത്യാവശ്യ വർക്ക് ഇത് മാത്രമേ ഞാൻ ഈടാക്കാറുള്ളു പൈസ പിന്നെ ഞങ്ങളുടെ അടുത്ത സാധനങ്ങൾ ഈ ഡ്രസ്സ് തയ്ക്കാനുള്ള സാധനങ്ങൾ ഒക്കെ മേടിക്കുന്നത് അടിമാലി ഭാഗത്തിനടുത്താണ് ആ ഭാഗത്തൂന്ന് തയ്യലിന് ആവശ്യമായ സാധനങ്ങൾ എല്ലാം നമ്മൾ മേടിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യം ഉള്ള സാധനങ്ങൾ വെച്ച് തയ്ച്ച് നമുക്ക് ഇഷ്ടമുള്ള ഉടുപ്പുകളോ ചുരിദാറുകളോ ബ്ലൗസുകളൊക്കെ തയ്ക്കും ഷർട്ടുകൾ തയ്ക്കാൻ എനിക്ക് അറിയത്തില്ല ഷർട്ട് തയ്ക്കാനും പാൻറ്റ് തയ്ക്കാനും ഞാൻ അടുത്തുള്ളവർ അടുത്തുള്ള ഒരു കടയിൽ കൊടുക്കുകയാണ് സാധാരണ പതിവ് അപ്പം അതിൽ നിന്ന് ചെറിയ ചെറിയ വരുമാനങ്ങൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റാറുണ്ട് പിന്നെ ഒത്തിരി വലിയ ബിസിനസ്സായിട്ടും കാര്യങ്ങളായിട്ട് ഒന്നും നടത്താൻ വേണ്ടീട്ട് പ്പ ട്ട് ഞാൻ ചെയ്യാറില്ല ഞാൻ ചെറുതായിട്ട് തയ്യൽ മാത്രമേ പഠിച്ചിട്ടുള്ളു അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ജോലികൾ ഞാൻ ഏറ്റെടുത്തു ചെയ്യാറുണ്ട് അത് മറ്റുള്ളവരുടെ കയ്യിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളവരുടെ കയ്യിൽ നിന്നോ എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് നിന്നോ മാത്രമേ ഞാൻ അവർക്ക് ആവശ്യത്തിനുള്ള എന്ത് ആവശ്യമെന്ന് മനസിലാക്കി എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ആണെങ്കിൽ ഞാൻ ആത് മേടിച്ചു ചെയ്യുകയാണ് സാധാരണ ചെയ്യാറ് പിന്നെ ഞാൻ വലിയ രീതിയിൽ വലിയ ഫാഷൻലൊന്നും തയ്യ്ക്കാൻ എനിക്ക് അറിയില്ലാത്തോണ്ട് തന്നെ ഞാൻ ചെറിയ ചെറിയ തയ്യലുകളാണ് ഏറ്റെടുക്കാറ് പിന്നെ ആർക്കെങ്കിലും വലിയ രീതിയിൽ ഫാഷനിലൊക്കെ തയ്ക്കാൻ ആവശ്യമുണ്ടെന്നു പറഞ്ഞാൽ അത് ഞാൻ എൻ്റടുത്തുള്ള ആളുകളുടെ നല്ലപോലെ തയ്ക്കുന്ന ഒരു യൂണിറ്റ് തന്നെ ഞങ്ങളുടെ അടുത്തുണ്ട് അവരുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു അവരോടു പറഞ്ഞ് ഞങ്ങൾ ചെയ്യിച്ചു കൊടുക്കുക ആണ് സാധാരണ ചെയ്യുന്നത് അതുകൊണ്ടു തന്നെ ചെറുതായിട്ട് അതിൽ നിന്ന് എനിക്ക് ഒരു വരുമാനവും എൻ്റെ ആവശ്യങ്ങളും എന്ത് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും നടത്താനുള്ള ചെറിയ വരുമാനങ്ങൾ എനിക്ക് ഈ തയ്യലിൽ നിന്നും ലഭിക്കാറുണ്ട് അത് അതുകൊണ്ട് ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടു പോകുന്നൊരു ചെറിയൊരു ബിസിനെസ്സ്ന്ന് പറയാം അത് ആ രീതിയിലുള്ള ഒരു കാര്യമാണ് തയ്യൽ അപ്പോൾ എനിക്ക് എൻ്റെ രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തയ്ക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് എനിക്ക് ഏതെങ്കിലും മോഡലുകളോ എന്തെങ്കിലും കാര്യങ്ങളോ ഇഷ്ടം ഉണ്ടെങ്കിൽ അത് ഞാൻ കണ്ടുപിടിക്കയും അത് ഞാൻ യൂട്യൂബുകളിലോ മറ്റോ നോക്കിയത് തയ്ക്കാൻ ഞാൻ ശ്രമിക്കാറുമുണ്ട് അത് തയ്ച്ചു കഴിയുമ്പോൾ തന്നെ വളരെ മനസ്സിനൊരു സമാധാനമാണ് പിന്നെ അത് തയ്ച്ചു കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ ആരോടും ചോദിക്കാതെ തന്നെ നടത്താനും എനിക്ക് പറ്റാറുണ്ട് അതുകൊണ്ട് തയ്യൽ ഒരു ചെറിയ ബിസിനസ് എല്ലാവരും ചെയ്യുന്നത് നല്ലതാണെന്ന് ഞാൻ എനിക്ക് ആണ് എൻ്റെ അഭിപ്രായം ഫാക്ടറികൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരാൾ അല്ല ഞാൻ ഞാൻ എൻ്റെ സമയത്തിന് അനുസരിച്ച് തയ്ക്കുന്ന ആളാണ് അപ്പം ഞാൻ എന്റെ സമയത്തിന് അനുസരിച്ചു സാധനങ്ങൾ മേടിച്ച് കാലത്തോ വൈകുന്നേരമോ എന്നുള്ള രീതിയിൽ ഒക്കെ തയ്ക്കുന്ന ആളാണ് അല്ലാതെ കൂടുതലായിട്ട് വലിയ തയ്യലും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ ചെറിയ ഒരു വരുമാനം മാർഗമായതു കൊണ്ടു തന്നെ ഞാന് അത് തുടർന്ന് കൊണ്ട് പോകുന്നു എനിക്ക് ഇടവേളകൾ കിട്ടുമ്പോളോ എൻ്റെ പണികളുടെ സമയത്തോ ഇടക്ക് ഒക്കെ ആയിട്ടാണ് ഞാൻ ചെറുതായിട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല എനിക്ക് ഇഷ്ടമുള്ള ഒരു രംഗമാണ് അതുകൊണ്ടു തന്നെയാണ് ഞാൻ ചെറുതായിട്ട് പഠിക്കേം എൻ്റെ ജോലികളുടെ ഇടയ്ക്ക് ഞാൻ ചെറുതായിട്ട് തയ്യലുകൾ ചെയ്യാൻ ശ്രമിക്കുകേം ചെയ്യുന്നത് പിന്നെ ഞാൻ മറ്റുള്ളവരുടെ കയ്യിന്ന് കൂടുതൽ മേടിക്കാൻ ത്തത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ച് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ മേടിക്കെ തയ്ക്കാനും അത് എനിക്ക് ഉപയോഗിക്കാനും പറ്റും പിന്നെ മറ്റുള്ളവരുടെ അത്യാവശ്യം അവർക്ക് നമ്മൾ തയ്ക്കുമ്പോൾ കുഴപ്പം ഇല്ലെന്ന് പറയുന്നതോ അവരുടെ കയ്യിന്ന് നമ്മൾ മേടിച്ചു ചെറുതായിട്ട് നമ്മൾ തയ്ച്ചു കൊടുക്കും അപ്പോൾ അത് എനിക്കൊരു വരുമാനമാണ് പിന്നെ മറ്റുള്ളവരെ മുമ്പിൽ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പൈസ മേടിക്കാൻ ണ്ടി വരില്ല ഇങ്ങനൊരു ചെറിയൊരു ബിസിനസ്സ് ഞാൻ ചെയ്യുന്നത് കൊണ്ട് അത് എനിക്ക് ഏറ്റവും നല്ല ലാഭവും ഞാൻ അതൊരു ജീവിത വിജയവുമായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ടു തന്നെ തയ്യൽ ഞാൻ കൂടുതലായിട്ട് സ്നേഹിക്കുന്നു